അതെ മാനേജർ ആണ് പേര് സിന്ധു ആ എന്താ സിന്ധു പറഞ്ഞോളൂ

ആ സ്ഥിരം നിക്ഷേപത്തിന് ഏഴ് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് സാധാരണ കൊടുക്കുന്നത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എയിറ്റ് പെർസെൻറ്റ് കിട്ടും ഇപ്പോൾ നിങ്ങൾ എത്ര ഏജ് ആയി നിങ്ങൾ സിക്സ്റ്റി ബിലോ സിക്സ്റ്റി അറുപതിന് താഴെ ആണോ അറുപതിന് മുകളിൽ ആണോ

ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ എഴുപത് ഏഴര ശതമാനം പലിശ കിട്ടും ഏഴര ശതമാനം ആ ഓ ആ കിട്ടും കിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട് അല്ലെങ്കിൽ

ആ പരിരക്ഷ നിങ്ങളുടെ ടെൻ ലാക്സിന് പരിരക്ഷ ഉണ്ട് കാരണം അല്ല എങ്കിൽ നമുക്ക് മറ്റേ ആൾ കസ്റ്റമേഴ്സ് നമ്മൾ ബാങ്കിനെ വിശ്വസിക്കില്ലല്ലോ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് ബാങ്ക് ബാങ്കിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ട് പൈസ പോവാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിൽ എല്ലാ സ്ഥിര നിക്ഷേപങ്ങൾക്കും പരിരക്ഷ കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ആ അത്

ഇല്ല ഇല്ല ഇല്ല ഇത് അത് അതിൻ്റെ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്കുള്ള ബാങ്കിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള സർവീസ് ആണ് അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും ഇല്ല അതായത് നിങ്ങളുടെ പൈസക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ ബാങ്കിന് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് പൈസ തിരിച്ച് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് ആണ് അപ്പോൾ ആ ഉറപ്പ് ബാങ്കിൻ്റെ ഉത്തരവാദിത്തം അല്ലേ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക പൈസ ഒന്നും ഈടാക്കുന്നില്ല ചോദിച്ചോളൂ ചോദിച്ചോ അത് രണ്ട് വർഷത്തേക്ക് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മൾക്ക് രണ്ട് വർഷം കഴിഞ്ഞ് ആണ് പിൻവലിക്കാൻ നിയമപരമായിട്ട് പറ്റുകയുള്ളൂ ഇനി അതിന് മുൻപ് വലിയ വലിയ ഒരു ആവശ്യം ഒക്കെ വന്ന് നിങ്ങൾക്ക് പിൻവലിക്കേണ്ട ഒരു അത്യാവശ്യം വന്നാൽ നിങ്ങൾക്ക് പിൻവലിക്കാം പക്ഷെ പലിശ ഒരുപാട് കണ്ട് കുറയും അതാ ഒരു പ്രശ്നം ഉള്ളൂ അല്ലാതെ പൈസ നിങ്ങളുടെ മുതൽ ആണ് നിങ്ങൾക്ക് അത് പിൻവലിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ പലിശ നല്ല വണ്ണം കുറഞ്ഞിരിക്കും അതുകൊണ്ട് പിന്നെ സാധാരണ ആൾക്കാർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ കാലാവധിക്ക് ശേഷമേ എടുക്കാറുള്ളൂ പക്ഷെ ഇടയ്ക്ക് വച്ച് എടുക്കുന്നതിന് കുഴപ്പമില്ല തീർച്ച ആയിട്ടും അതെ തീർച്ച ആയിട്ടും അതെ അതായത് നമ്മുടെ ബാങ്ക് പിന്നെ അത് ദേശസാൽകൃത ബാങ്ക് അല്ലേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്റ്റ് കൺട്രോളിൽ ഉള്ള ബാങ്ക് അല്ലേ നമ്മുടേത് അതിന് ഗവർമെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് പരിരക്ഷ തരുന്നില്ലെങ്കിൽ പിന്നെ എവിടെ നിങ്ങൾക്ക് പരിരക്ഷ കിട്ടുക അപ്പോൾ അത് കിട്ടുന്ന കാര്യം അല്ലല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള എല്ലാ പരിരക്ഷയും കിട്ടിയിരിക്കും

ഓക്കെ അത് ഞങ്ങളുടെ കടമ അല്ലേ ബാങ്ക് എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം അല്ലേ പൊതു ജനങ്ങൾക്ക് വേണ്ടി അല്ലേ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആണ് ഞങ്ങൾ പറഞ്ഞിരിക്കുമല്ലോ ഓക്കെ താങ്ക് യു ആ ഓക്കെ ഒരുപാട് നന്ദി വിളിച്ചതിന് നന്ദി ഓക്കെ ഇനിയും ആവശ്യം ഉള്ളപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം